ഇന്ന് നേരിട്ടു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കാലാവസ്ഥ പ്രതിസന്ധിക്ക് കാലാവസ്ഥ പ്രതിസന്ധിക്ക് ഒരു മാറ്റം വരുത്താൻ ഇന്നത്തെ കുട്ടികളിൽ സാധിക്കും വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് കേരളത്തിലെ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളെ ഈ കാലാവസ്ഥ പ്രതിസന്ധിയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും കാലാവസ്ഥ പ്രതിസന്ധി ഉയർന്നിരിക്കുന്നത് ഗ്ലോബൽ വാർമിംഗാണ് ഈ ഗ്ലോബൽ വാർമിങ്ങ് ഉണ്ടാകുന്നത് തന്നെ ജനങ്ങൾ കൂടുതൽ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് കൊണ്ടാണ് അതെല്ലാം പ്ലാസ്റ്റിക്കുകളുടെ അധികമായി ഉപയോഗം മരങ്ങൾ വെട്ടി നശിപ്പിക്കൽ ഇതൊക്കെയാണ് കൂടുതലും ഈ കാലാവസ്ഥ പ്രതിസന്ധിയ്ക്ക് കാരണം കാലാവസ്ഥ വളരെയധികം ചേഞ്ച് ചെയ്തു കഴിഞ്ഞു മഴയില്ലാത്തപ്പോൾ മഴ പെയ്യുകയും ചൂട് വേനൽക്കാലത്ത് ചൂടുകൾ വളരെയധികം കൂടുകയും ചെയ്ത കാലത്ത് അതാണ് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ കുട്ടികളിൽ അതിൻ്റെ അവബോധം അവരിൽ ചിലർത്തുക എന്നതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് കുട്ടികളുടെ അവബോധം ചെലുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം കേരളത്തിലെ വിദ്യാഭ്യാസ രീതികളിലെല്ലാം കാലാവസ്ഥ പ്രതിസന്ധികൾ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇതിൽ മാറ്റം വരുത്താൻ പറ്റും കുട്ടികളിലാണ് ആദ്യം ചുട്ടയിലെ ശീലം ചുടല വരെ എന്നു പറയുന്നത് പോലെ കുട്ടികളിലാണ് ആദ്യം ഇതിൻ്റെ അവബോധം തുടങ്ങേണ്ടത് കുട്ടികളിൽ തുടങ്ങി വലിയവരിലേക്ക് ഇത് ഇതിൻ്റെ ആവശ്യകത വരികയും കുട്ടികളുടെ അവബോധം വളർത്തുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ലൊരു മാറ്റം നമ്മുടെ ഈ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കും കാലാവസ്ഥയിലെ പ്രതിസന്ധി മാറ്റുക എന്നത് വച്ചാൽ നമ്മൾ തന്നെ ഇറങ്ങി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് കൂടുതൽ മരങ്ങൾ വച്ചു പിടിപ്പിക്കാൻ പഠിക്കുക പഠിപ്പിക്കുക കൂടുതൽ പ്ലാസ്റ്റിക്കുകളുടെ ഉപയോഗം പൂർണ്ണമായി നിർത്തുക അത് സ്കൂളിൽ ഇപ്പം പല സ്കൂളുകളിലും അത് മുന്നോട്ട് കൊണ്ടു വന്നിട്ടുണ്ട് ഇപ്പോൾ പല സ്കൂളുകളിലും പ്ലാസ്റ്റിക് അവരുടെ സ്കൂളുകളിൽ പ്രവേശിപ്പിക്കുന്നേ ഇല്ല ഇപ്പം സ്റ്റീൽ പാത്രങ്ങളും മറ്റും ഉപയോഗിക്കാനും തുണി തുണി കൊണ്ടുള്ള സഞ്ചികൾ ഉപയോഗിക്കാനും അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു അവർ അതിൽ നല്ല അവബോധം ഇതുമാണ് കൊടുക്കുന്നത് പ്രകൃതിയിൽ മരങ്ങൾ വച്ചു പിടിപ്പിക്കൻ അവർക്ക് ചെടികൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പല കാര്യങ്ങളും ഇപ്പം മുന്നേറി നടക്കുന്നുണ്ട് ഇതിൽ നിന്ന് അവരുടെ ബുദ്ധി വികാസത്തിലും അവരുടെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അതിലൊരു അവബോധം വരികയാണെങ്കിൽ അത് ഭാവിയിലോട്ട് വലിയ കാര്യങ്ങളാണ് ഉന്നമനത്തിന് വലിയ കാര്യമാണ് ചെയ്യുന്നത് ഇപ്പം പ്രകൃതി തന്നെ നമുക്ക് ഒരിക്കൽ തരുന്ന തണലാണ് മരങ്ങൾ അതിൽ നമ്മൾ അവർക്ക് മരങ്ങളെ കുറിച്ചുള്ള കൂടുതൽ അവബോധം അവരുടെ ക്ലാസ്സുകളിലും മറ്റും ചെയ്യും അവരെ ഒരു മരം വെട്ടിയാലും പത്ത് മരങ്ങൾ വച്ചു പിടിപ്പിക്കണമെന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയും ചെയ്തു അവർ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും അവരുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും വെള്ളത്തിൻ്റെ ദൗർലഭ്യം കുറയുന്നത് തന്നെ വെള്ളം കുറയുന്നത് തന്നെ ജനങ്ങളുടെ ഉപയോഗം കൂടുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ഓരോ തുള്ളി വെള്ളത്തിനും വാല്യു ഉണ്ട് എന്നുള്ളത് അവരെ പഠിപ്പിക്കുകയും ഇപ്പം കിട്ടുന്ന പ്രകൃതിയിലെ വെള്ളങ്ങൾ ശേഖരിച്ചു വയ്ക്കാനുള്ള ക്ലാസ്സുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്താൽ

ഈ സമൂഹം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾക്ക് അനുരൂപമായിട്ട് വിദ്യാഭ്യാസത്തെ ചേഞ്ച് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എങ്കിലേ ഇന്നത്തെ കാലത്ത് മുന്നോട്ട് പോവാൻ സാധിക്കുകയുള്ളൂ പല കാര്യങ്ങളിലും കാലാവസ്ഥ മാത്രമല്ല പല കാര്യങ്ങളിലും ഇന്നത്തെ ഇനി ഇൻറ്റർനെറ്റിൻ്റെ ലോകമായത് കൊണ്ട് കൂടുതൽ കുട്ടികളിൽ കമ്പ്യൂട്ടറിൻ്റെ ശീലം വളർത്തുകയും അതിൽ അവർ കൂടുതൽ അവരെ ആദ്യം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൽ വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അവർക്ക് മുന്നോട്ട് പോവാനും ഒക്കെ വളരെ സഹായകരമാകുകയാണ് ഇപ്പം വിദ്യാഭ്യാസം കുട്ടികളിൽ വിദ്യാഭ്യാസ കാലത്താണ് അവരുടെ ബുദ്ധി വികസിക്കുന്നത് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അതിനുള്ള അവബോധം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ ഉയർന്നു വരാൻ സാധിക്കുമ്പോൾ ചെടികൾ വച്ചു പിടിപ്പിക്കുക മരങ്ങൾ വച്ചു പിടിപ്പിക്കുക ആ കുളങ്ങൾ നിർമ്മിക്കുക പ്രകൃതിയെ നമ്മൾ ഓരോ സാധനങ്ങൾ വലിച്ചെറിയാതെ പ്രകൃതിയെ ക്ലീനാക്കി വയ്ക്കാൻ പഠിപ്പിക്കുക അതെല്ലാമാണ് മെയിനായിട്ട് പിള്ളേരെ പഠിപ്പിക്കേണ്ടത് അത് അവർക്ക് അതിനായിട്ട് ഒരു സമയം കണ്ടെത്തുക അതിനുള്ള സ്കില്ല് വർധിപ്പിക്കാനുള്ള കഴിവുകൾ അവരെ അവരവരുടെ സാധനങ്ങൾ അവരെ ക്ലീൻ ചെയ്യാൻ പഠിപ്പിക്കുകയും എല്ലാം ചെയ്യുന്നത് വിദ്യാഭ്യാസ കാലത്താണ് ഇന്നത്തെ കാലത്തെ ഡി പി ഇ പി മുതലായ പാഠ്യ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടു വന്നപ്പോൾ അതുവഴി അവർ ഉയരുന്നുണ്ട് പലതും പ്രകൃതിയുമായി ചേർന്ന പ്രകൃതിൽ എന്ത് നടക്കുന്നു ഓരോ പ്രവർത്തനങ്ങളും ഇതുവഴി കണ്ടുപിടിക്കുവാനും ഒക്കെ സഹായിക്കുന്നത് പിള്ളേരുടെ വളർച്ചയെ കൂടുതലായിട്ട് സഹായിക്കുന്നതാണ് ഇന്നത്തെ കാലത്ത് സമൂഹത്തിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ മക്കളെ പഠിപ്പിക്കുക എന്നത് വളരെ അത്യാവശ്യമായ കാര്യമാണ് എല്ലാ വീടുകളിലും വൈദ്യുതിയും ഇൻ്റർനെറ്റും എല്ലാം എത്തിയപ്പോൾ കുട്ടികൾക്ക് പല കാര്യങ്ങളും അതിൽ നിന്ന് പഠിക്കുവാനും സാധിക്കുന്നുണ്ട് പലരും പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇണങ്ങാനുള്ള എല്ലാം കൃഷി രീതികളെക്കുറിച്ചും എല്ലാം അതിൽ വ്യക്തമായിട്ടും നെറ്റ് വഴിയും എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് കൂടുതൽ അവരെ അതിൽ വളർത്തിക്കൊണ്ടു വരികയാണെങ്കിൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് കൂടുതൽ അറിവുകൾ നൽകുകയും കൂടുതൽ പാഠ്യ പദ്ധതികൾ ഇന്നത്തെ സമൂഹത്തിനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി നൽകുകയും ചെയ്താൽ അവർക്ക് ഭാവിയിലോട്ട് കുട്ടികൾക്ക് ഇതിനൊരു സഹായമായി മാറും വിദ്യാഭ്യാസം ആണ് കുട്ടികളിലെ വളർച്ചയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന വിദ്യാഭ്യാസ കാലഘട്ടമാണ് അപ്പോൾ നന്മ സമൂഹത്തിനുള്ള നന്മയ്ക്കുള്ള കാര്യങ്ങൾ അവരിൽ കൊടുക്കാൻ പറ്റിയ വിദ്യാഭ്യാസം കൊണ്ടുവരികയാണെങ്കിൽ ഒരു വിദ്യാഭ്യാസത്തെ നല്ലൊരു മാറ്റം വരുത്തി അവർക്ക് ആവശ്യമായ സമൂഹത്തിന് എന്ത് ആവശ്യം എന്നുള്ള മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ നയം കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതെല്ലാം കാലാവസ്ഥ പ്രതിസന്ധിക്കും വരാനിരിക്കുന്ന തലമുറയ്ക്കും കുഴപ്പമാണെന്ന് അറിയിക്കുകയും ചെയ്താൽ വിദ്യാഭ്യാസം ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റും